ബോളിവൂഡ് ടോളിവൂഡ് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേം പാഷൻ ടെൻഡുകളെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് വസ്ത്ര വസ്ത്രധാരണ രീതിയിൽ യുവാക്കളും യുവതികളും ഇപ്പോൾ ആശ്രയിക്കുന്നത് ഏക കാര്യം ഈ സിനിമയിൽ നിന്നുള്ള ടെൻഡ് കണ്ടുപിടിച്ച് അവരങ്ങനുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് നടന്ന് നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കഥാപാത്രങ്ങളെന്ന് പറയുന്നതിപ്പം വേറെ സാഹചര്യത്തിലാണെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെയാണ് യഥാർഥ കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽലെ നയിക്കുന്നത് സിനിമയിലെ വസ്ത്ര സമാനമായവ സൃഷ്ട്ടിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിലും അതിനെപ്പറ്റിയുള്ള ടെൻറ്റുകൾ പറഞ്ഞു കൊടുക്കുകയും ആ രീതിയിൽ അതിനെ ക്രമീകരിക്കുകയും ചെയ്യും അപ്പം ഒരു സിനിമ തന്നെ പത്ത് പ്രാവിശ്യം കാണെണ്ട ഗതികേട് പോലും മറ്റുള്ള തയ്യൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാ വന്നിട്ടുണ്ട് ആ അതുകൊണ്ട് ഇത് വളരെ നല്ല സ്വാധീനമുള്ള കാര്യം ആണ് ഫാഷൻ ടെൻറ്റിൽ സിനിമയാണേറ്റവും കൂടുതൽ കടന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യം